ഒരു മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ നടത്താറുണ്ട് ഇപ്പം നമ്മൾ കൂടുതലായിട്ടും മത്സ്യബന്ധനത്തിനു പോകുന്നത് നൈറ്റ് ആയിരിക്കും ആ സമയങ്ങളിലാണ് പോയാൽ കൂടുതലായിട്ട് മീനും കാര്യങ്ങളും ഒക്കെ കിട്ടാറുള്ളത് ഏകദേശം ഒരു പന്ത്രണ്ടു മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും പോകാറുള്ളത് അപ്പം നമ്മൾ ഫുഡും വെള്ളവും ഒക്കെ നമ്മൾ എപ്പോഴും തയ്യാറാക്കി വെക്കണം ഇല്ലെങ്കിൽ നമ്മൾ നടുക്കടലിൽ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ വേറെ മാര്ഗ്ഗം ഒന്നുമില്ല നമുക്കവിടുത്തെ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പം പലരീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആ സമയത്ത് നമുക്ക് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളവും കാര്യങ്ങളും ഒക്കെ നമ്മൾ എപ്പോഴും കരുതി വയ്ക്കേണ്ട ഒരു സാഹചര്യം ആണുള്ളത് അപ്പം വെള്ളവും കാര്യങ്ങളും പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്തായാലും പന്ത്രണ്ടു മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും വെളുപ്പിനെ ആണ് എത്തുക ഒരു എഴുമണിയൊക്കെ ആകുമ്പോളേ നമ്മൾ ചിലപ്പം എത്താറുള്ളൂ ചില സമയത്ത് മീൻ കിട്ടുന്ന പോലെയൊക്കെ ഇരിക്കും വരുന്നതൊക്കെ അപ്പം ആ സമയങ്ങളിലൊക്കെ ചിലപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ട് ആയിരിക്കും അപ്പം ആ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കുക പിന്നെ ആവശ്യത്തിലേറെ പെട്രോൾ കരുതുക അതിന്റെ എന്ജിന് പ്രവര്ത്തിക്കണേ എന്തായാലും പെട്രോളും കാര്യങ്ങളൊക്കെ എന്തായാലും ആവശ്യമുള്ളതാണ് അപ്പോൾ പെട്രോള് എപ്പോഴും കരുതുക പിന്നൊരു കത്തി നമ്മൾ ഇതൊക്കെ കരുതുക പിന്നെ നമ്മൾ പോകുന്നതിനു മുന്നേ നമ്മൾ പ്രാര്ത്ഥിക്കാറുണ്ട് ഇപ്പം പല മതസ്ഥരും പല ആള്ക്കാരേ ആണ് പ്രാര്ത്ഥിക്കുക അപ്പം അവർ നല്ല രീതിയിൽ പ്രാര്ത്ഥിക്കും നമ്മൾ നമ്മുടെ ദൈവത്തെ ഏതാണോ നന്നായി ദൈവത്തെ വിളിച്ചിട്ടാണ് പോവുക പിന്നെ കൂടുതലായിട്ടും കടലമ്മയാണ് എല്ലാം ചെയ്യുന്നത് അപ്പം അതനുസരിച്ചാണ് നമ്മൾ പോകുക